ഉണ്ട്

അതു ഞങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാ വർഷത്തിലും മാസത്തിൽ ഒരു രണ്ടു തവണ അല്ലെ മൂന്നു തവണ വെള്ളപ്പൊക്കമോ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് ഞങ്ങൾക്കൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടു തോന്നുന്നില്ല സാധാ രീതി വെള്ളം വരും മുറ്റത്തു വരും പറമ്പിൽ വരും അങ്ങനെ വന്നു ഇനി അഥവാ തന്നെ കൂടിയാൽ തന്നെ പുരയ്ക്കകത്തോട്ടൊന്നും കയറാൻ പ്ലാനിട്ട് ഒന്നു കയറി വരും ഉടനെ ആ പിന്നെ ആ വെള്ളം അവിടം കൊണ്ടു നിൽക്കും പതുക്കെ പതുക്കെ കുറേശെ ഇറങ്ങി പോകും പക്ഷെ അതു കൊണ്ട് നമ്മൾക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട് പക്ഷെ ആർക്കും ഒരു മരണമൊ ഒരു ബുദ്ധിമുട്ടൊ ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ടിരിന്നാൽ അവിടെ ഈ വെള്ളം വന്നു നമ്മുടെ പറമ്പിലുള്ള വാഴ തെങ്ങ് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം അങ്ങു നശിക്കു അതോടുകൂടി വെള്ളം വന്ന് രണ്ടു ദിവസം ആ ചുവട്ടിൽ കിടക്കുമ്പം പറമ്പിലുള്ള സകല പച്ചക്കറികളും എല്ലാം പോകും അതോടു കൂടി പക്ഷെ നമുക്ക് യ യാത്ര ഒക്കെ എവിടോട്ടെങ്കിലും ചെയ്യാൻ പോകേണ്ടി ദൂരത്തോട്ടു പോകാനായിട്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴയൊക്കെ നമുക്കു പോകണമെന്നുണ്ടെങ്കിൽ അതു ഒരു ദുരിതം ആണ് എന്നു വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഇവിടെ ഈ വെള്ളം വന്നെന്നു പറഞ്ഞാൽ ഞങ്ങൾക്കു രണ്ടു സ്ഥലമോ ഉണ്ട് ഒന്ന് ചങ്ങനാശ്ശേരിക്കു പോകുന്ന റൂട്ടിൽ അങ്ങോട്ടു പോകാൻ മേല അവിടെ ഒരു കൃഷി ഇല്ലാത്ത പാടവും ഉള്ളതു കൊണ്ട് ആ റോഡ് എന്നും വെള്ളമാണ് പഴുതിയെന്നു പറഞ്ഞൊരു റോഡ് എപ്പോഴും വെള്ളത്തിലാണ് കൃഷി ഉണ്ടെങ്കിൽ വെള്ളമോ ഇല്ല പക്ഷെ അവിടെ കൃഷി ഇല്ല അതുകൊണ്ട് ഒരു ഒരു ഒരു കിലോ മീറ്ററോളം വെള്ളത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകേണ്ടത് വണ്ടി ഓടിച്ച് ഓടിച്ച് ആ വ റോഡ് മുഴുവൻ കുഴിയും കുണ്ടും കുഴിയുമായി മിക്ക ബൈക്കും സ്കൂട്ടറും ആ കുഴിയിൽ ചെന്ന് ആ ഗട്ടറിൽ ചെന്നു ചാടുക മറിയുക പിന്നെ പുറകെ വരുന്ന ആരെങ്കിലും ആണ് പിടിച്ചു പൊക്കി അവരെ രക്ഷിക്കുന്നത് അതുപോലെ തന്നെ എടുത്തുവായിക്ക് പോകാനാണെങ്കിലും പരപ്രംമുട്ടം എന്നു പറഞ്ഞൊരു ഭാഗമുണ്ട് ആ ഭാഗത്തും വെള്ളം ആകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുത്തുവായിക്ക് പോകാൻ മേല ചങ്ങനാശ്ശേരിക്കു പോകാൻ മേലാതെ ഞങ്ങളിതിൻ്റെ നടുക്കു കിടക്കുകയാ ണ പക്ഷെ ഈ പഞ്ചായത്തുകൾ ഇവരെല്ലാം വന്ന് ഈ ജയിച്ചു പോയെങ്കിലും ഒരു മെമ്പർമാരും ഒരു എം എൽ ഏമാരും ഒരുത്തരും നമുക്ക് അതിനുള്ള ഒരു സഹായവും ചെയ്യുന്നില്ല എത്രയോ വർഷങ്ങളായി ഞാൻ കൊടുപ്പനെ വന്നിട്ട് പത്തു മുപ്പത്തി മൂന്ന് വർഷമായി പക്ഷെ ഇന്നു വരെ ഈ റോഡിന് ഒരു മാറ്റവും ഇല്ല ഒന്ന് എവിടെയെങ്കിലും കുഴിയും കുണ്ടും വരുമ്പോൾ ഇച്ചിരെ മെറ്റൽ ഇട്ട് ഇച്ചിരെ ടാറ് ഒഴിച്ച് അവർ പൂശി വിടും അത് ഒരു മാസം കഴിയുമ്പം അത് ഇളകി അങ്ങു പോയി പിന്നെയും കുഴി ആകും അല്ലാതെ നമ്മളുടെ സ്മി ഇവിടെ ഈ വെള്ളപൊക്കവും കൊണ്ട് ഒരു മരണം സംഭവിക്കുന്നില്ല പിന്നെ വല്ലവർക്കും വയ്യായ്ക വന്ന ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ആയിട്ട് വള്ളത്തെ വരുവോ ബോട്ടേൽ വരുവൊ എങ്ങനെയെങ്കിലും വന്നു കൊണ്ടു പോയി രക്ഷപ്പെടുത്തും ഒരു മരണം വെള്ളപ്പൊക്കത്തിലൂടെ സംഭവിക്കുന്നില്ല പിന്നെ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അടുത്തടുത്ത കടകളുള്ളതു കൊണ്ട് അന്യായ വില കൊടുത്താണെങ്കിലും നമുക്കു കിട്ടും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വെള്ളപ്പൊക്കം കൊണ്ട് ഇവിടങ്ങളിലെ വെള്ളപ്പൊക്കം കൊണ്ട് കുട്ടനാട്ടിലെ വെള്ളപൊക്കം കൊണ്ട് നമുക്കു വലിയ ബുദ്ധിമുട്ടില്ല അതേ സമയം കിഴക്കൊക്കെ ഉള്ള ബുദ്ധി ബു വെള്ളമെന്നു പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒത്തിരി പേരിപ്പോൾ ഈ വെള്ളപ്പൊക്കം പ്രമാണിച്ച് ഇപ്പോഴും കിഴക്കോട്ടു പോകുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഉരുൾ പൊട്ടി ഉറക്കത്തിലാണ് നഷ്ട മരണത്തിലേക്കു വഴുതി വീണത് അവരുടെ സകലതും വീടും സകലതും നഷ്ടപ്പെടുന്നത് നമുക്കിത് അങ്ങനെ ഒന്നും നഷ്ടപ്പെടാനില്ല പിന്നെ നമുക്ക് ഈ പതിനെട്ടിലെ വെള്ളപൊക്കം വന്നതോടു കൂടി എല്ലാവരും നല്ലൊരു പാഠം പഠിച്ചു അതു വീടിൻ്റെ അകത്തു വരെ മുട്ടിനു മേലെ വെള്ളമോ ആയിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവമാണ് ഞങ്ങൾ എല്ലാവരും കട്ടിലേന്ന് ഇറങ്ങുന്നത് വെള്ളത്തിലേക്ക് കരയ്കകത്തിരുന്നാലും ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ടോയിലെറ്റാണ് എല്ലാവർക്കും ടോയി എല്ലാവർക്കും എന്നും ടോയിലറ്റിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടല്ലൊ ആ വെള്ളം പോകുന്ന സമയത്ത് നമുക്കു പോകാനായിട്ടു പറ്റാത്ത ഒരു എല്ലാ ടാങ്കുകൾ സെപ്റ്റിക് ടാങ്കുകൾ നിറയും വെള്ളം വന്നു പൊങ്ങുമ്പോൾ നിറയും ആർക്കും അതിന് അതിന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ആ വെള്ളം ആണ് സകലമാന വെള്ളം എല്ലാം ഇവിടെ എല്ലാം ഒഴുകി അങ്ങനെ നടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പല രോഗങ്ങളുണ്ടാകും പക്ഷെ അപ്പോഴും കുടിക്കാൻ നല്ല വെള്ളമോ ഉള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ അങ്ങനെ മഴ വെള്ള സംഭരണി ഉണ്ടാക്കി വെള്ളം ശേഖരിക്കുന്നതു കൊണ്ട് ഞങ്ങൾക്കു വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പോകുന്നു പക്ഷെ വെള്ളപൊക്കത്തെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ മാസം വെള്ളപൊക്കമോ ആയിരുന്നു ജൂലൈ ഈ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇവിടെയെല്ലാം വെള്ളപൊക്കം ജൂൺ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വെള്ള പൊക്കം ആയിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒന്നും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേലാതെ ഇരുന്നു എന്നുള്ളതെ ഉള്ളു ഒരു കുഴപ്പവും ഇല്ല വെള്ളം പൊങ്ങുന്നുണ്ട് എല്ലാം ഒന്നു കഴുകി ശുദ്ധീകരിച്ച ആ വൃത്തികേടും ആ മാലിന്യങ്ങളെല്ലാം ഒഴുകി ഒന്നു പോകും എന്നുള്ളതെ ഉള്ളു ഇനിയിപ്പം അടുത്ത വെള്ളപൊക്കം പ്രതീക്ഷിച്ച് എല്ലാവരും ഇരിക്കുകയാണ് ഓഗസ്റ്റിൽ എന്തായാലും അടുത്ത വെള്ളം ഇതിലും വലിയൊരു വെള്ളപൊക്കം വരൂ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല ആർക്കും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊ പ്രശ്നങ്ങളൊ ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വെള്ളപൊക്കം പിന്നെ കുടിയ്ക്കാൻ വെള്ളത്തിനു പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് ഈ മഴ പെയ്യുന്ന ഈ നല്ല വെള്ളമോ ഓലി കെട്ടി മഴവെള്ള സംഭരണി ആക്കി അതു പിടിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവർക്കും ആ മഴ വെള്ളം കൊണ്ടു തന്നെ ഒരു വർഷം നല്ല രീതിയിൽ വെള്ളം കഞ്ഞി വെക്കാനും കാപ്പിക്കും കുടിക്കാനും എല്ലാറ്റിനും ആ വെള്ളം ആകും ഞങ്ങളങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ എട്ടൊ ഒൻപതു വർഷമോ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന സ്ഥിരം വ്യക്തികളായതു കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിനു പോലും എങ്ങും പോകേണ്ടി വരുന്നില്ല അടുത്ത മഴയുടെ സീസൺ വരെ ഞങ്ങൾക്ക് ആ വെള്ളം ഉണ്ട് നമ്മൾ ആ മുൻകരുതലുകൾ എടുക്കുന്നതു കൊണ്ട് നമുക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ വെള്ളം പൊങ്ങിയാലും ബുദ്ധിട്ടില്ല എല്ലാം കൊണ്ടും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും നല്ലൊരു രീതിയിൽ ഈ വെള്ളത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ദൈവം നമ്മളുടെ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കില്ലെന്നു നമുക്കു പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്യം ഉത്തരവാദിത്യത്തോടെ ചെയ്തു ദൈവത്തിലാശ്രയിച്ചു മുന്നോട്ടു പോയാൽ നമുക്കു നല്ല രീതിയിൽ ഈ വെള്ളപൊക്കത്തെ സ്വീകരിക്കുക പിന്നെ എപ്പോഴും വെള്ളം കയറുന്ന കുറെ വീടുകളുണ്ട് അതു തന്നെ പണ്ടൊക്കെ വെച്ചാൽ കൊച്ചു കൊച്ചു വീടുകളാകുമ്പോൾ അവരുടെ പുരയ്ക്കകത്തെല്ലാം വെള്ളം കയറി അവരുടെ കതകും കട്ടിൽ അലമാരി ഇങ്ങനെ ഫി ഫ്രീട്ജ് എല്ലാം പോകും അങ്ങനെ ദുരിതമനുഭവിക്കുന്നവരുണ്ട് പിന്നെ ഈ വെള്ളപൊക്കത്തെ കൂടുതലും ഇതാക്കി ഒരു വിധത്തിൽ ഒന്നും അല്ലാതെ ആക്കിയവരോടു തന്നെ പ ഇതു പാലത്തെ കഞ്ഞി ഇട്ടു വെച്ചു പിന്നെ അങ്ങനെ സഹായി ഇങ്ങനെ അതൊക്കെ വെറുമൊരു അനാമത്താണ് എൻ്റെ നോട്ടത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവനവനാൽ കഴിയും വിധം എല്ലാവർക്കിപ്പോൾ ജീവിക്കാനുള്ള വകയൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് അത് അങ്ങനെ അങ്ങു പോകുന്നത് ആണ് ഏറ്റവും നല്ലത് ഇപ്പോൾ വെള്ളത്തെ പേടിച്ച് ആരും എങ്ങും പോയി പിന്നെ മരിക്കേണ്ടവർ ഏതു സമയത്തായാലും എവിടെയാണെങ്കിലും മരിക്കും എല്ലാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ടു പോകുക ഏതു വെള്ളത്തെയും നമ്മൾ തരണം ചെയ്യാൻ പതിനെട്ടിലെ വെള്ളപൊക്കം വന്നിട്ടു പോലും ആരും മരിച്ചില്ല എല്ലാവരെയും രക്ഷപ്പെടുത്തി ഞങ്ങളും അതിൽ രക്ഷപ്പെട്ടവരാണ് അപ്പം പത്ത് എൺപത്തിഎട്ട് വയസ്സായ അച്ചായൻ ഞങ്ങളുടെ കൂടെ ഉള്ളതായിരുന്നു ആ അച്ചായനെ പോകാൻ വിളിച്ചിട്ട് എന്തു ചെയ്ത് അച്ചായൻ വരത്തില്ല വെളുപ്പിനെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ നിന്ന് കാലു വെക്കുന്നത് വെള്ളത്തിലേക്ക് അന്നേരം അച്ചായൻ ഉടനെ ഇവിടെ നിന്നു പോകണം ഇതൊക്കെ വാശിയാണ് അച്ചായൻ്റെ പ്രായത്തിൻ്റെ ആണ് ആരെ വെളുപ്പിനു പോകണെ അങ്ങനെ ഞങ്ങൾ വാശി പിടിച്ചിട്ടു പോകാൻ പറ്റുമ്പോൾ അന്നേരം വല്ല വാഹനവും വരുമോ ഇല്ല പിന്നെ വിളിച്ചും പറഞ്ഞും കൊണ്ടുവന്ന് പുന്നപ്ര കായലിൽ യമഹ വന്നു ഞങ്ങളെ കയറ്റി ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ കൊണ്ടു ഇറക്കുകയാണ് അപ്പോൾ അതിൻ്റിടയിൽ ഒരു കാര്യം നടന്നു ഞങ്ങളുടെ മോൾ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിനു പോയ മോൾ ഹോസ്റ്റൽ അടച്ചു വീട്ടിൽ വരാണമെന്നും പറഞ്ഞ് എങ്ങനെയൊ എടത്വായിൽ വന്ന് വീട്ടിൽ വരാൻ നിവൃത്തിയില്ല യ എന്നെ എങ്ങനെയെങ്കിലും വന്ന് കൊണ്ടുപോകൂ എന്നു പറഞ്ഞ് റോഡും തോടും മൊത്തം വെള്ളത്തിൽ റോഡേതാണ് തോടേതാണ് പുര വീടേതാണെന്നൊന്നും അറിയാൻ മേലാത്ത അവസ്ഥയിൽ പെട്ടെന്നു തന്നെ ഞങ്ങൾ റെഡി ആയി കൊണ്ടുവരണമല്ലോ ഞങ്ങൾ രണ്ടും റെഡി ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് ടാക്ടർ പോകുന്നു ടാക്ടർ ഓടുന്നുണ്ട് അന്നേരം ഈ റോഡിൽ ആ ടാക്ടർ ആ വെള്ളത്തിൽ കൂടി ഞങ്ങളോടി ചെന്ന് അവിടെ തന്നെ മോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു കൂട്ടുകാരിയും വന്നു നിൽപ്പുണ്ട് ആ യമഹായ്ക്ക് അല്ല ആ ടാക്ട്രിന് ഒരാൾക്ക് അഞ്ഞൂറ് റൂപാ കൊടുത്ത് ഞങ്ങൾ രണ്ടു പേരും അങ്ങോട്ടു പോയി അവിടെ നിന്നു തിരിച്ചു അവരെ രണ്ട് പേരെയും കയറ്റി ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ പുരയ്ക്കകം മൊത്തം വെള്ളത്തിൽ മുട്ടറ്റം വെള്ളം അങ്ങനെ ഞങ്ങൾ വന്നിട്ടാണ് നാലു മണിയ്ക്ക് യമഹയിൽ കയറി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേരുന്നത് ഇതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു പോറലു പോലും ഏൽക്കാതെ എല്ലാവരും എല്ലാ സ്ഥാനത്തും യഥാ സ്ഥാനത്തെത്തി ചേർന്നു